ഞാനൊരു വീട്ടമ്മയാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം എൻ്റെ അടുക്കളയിലാണ് ചിലവഴിക്കുന്നത് രാവിലെ അടുക്കളയിൽ കയറിയാൽ പ്രഭാത ഭക്ഷണം അപ്പം മുട്ടക്കറിയും അല്ലെങ്കിൽ പുട്ടും കടലയും അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും സാധാരണ ഉണ്ടാക്കാറ് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കറിയും ഉപ്പേരിയും തോരനും പിന്നെ മീനും പപ്പടവുമൊക്കെയായി ഉച്ചയൂണും അടിപൊളിയാക്കും പിന്നെ വൈകുന്നേരത്തെ ചായക്ക് പലഹാരമായി എന്തെങ്കിലുമുണ്ടാക്കും പിന്നെ ഉച്ചയൂണു പോലെ രാത്രിയുടെ ഭക്ഷണവും തയ്യാറാക്കും ഞാനുണ്ടാക്കിയ ഭക്ഷണത്തിൽ എനിക്കേറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ചപ്പാത്തി ഉണ്ടാക്കലാണ് കാരണം അത് പരത്തലും കുഴക്കലും ഒന്നും ശരിക്കങ്ങോട്ട് ശരിയാകില്ല അതുകൊണ്ടാണ് എനിക്ക് അത് പ്രയാസമായി തോന്നുന്നത് മറ്റുള്ളതൊന്നും എനിക്കത്ര പ്രയാസമായി തോന്നിയിട്ടില്ല പിന്നെ എല്ലാ ദിവസവും ഒന്നു മാത്രമായാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാകില്ല അതുകൊണ്ടോരോ ദിവസവും മാറി മാറി പലവിധം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കാറ്